എനിക്ക് ഒരു സമകാലിക സംഭവത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ ഗവൺമെൻ്റിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് അപാകതകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെ ഒക്കെയാണ് മന്ത്രി മന്ത്രിമാരായിട്ട് എടുത്തിരിക്കുന്നത് അവർക്ക് എന്തു തോന്നിയവാസവും കാണിക്കാം നമ്മളൊന്നും ചെയ്തു കൂടായിക എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അതായത് ഇപ്പോഴത്തെ ഒരു ഭരണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെതന്നെ റോഡുകളിൽ ക്യാമറ വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ അതായത് ക്യാമറ വച്ച് എന്താ പറയുക പാവപ്പെട്ടവരെ എങ്ങനെ പൈസ പിഴിഞ്ഞ് അവരുടെ കയ്യിൽനിന്ന് എങ്ങനെ അവർക്ക് ഖജനാവ് നിറയ്ക്കാം അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഉള്ളത് ഇതിപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉള്ളത് അതായത് ക്യാമറ വച്ചിട്ട് അവർ എന്തോ സാധാരണക്കാരുടെ അടുത്ത് നിന്നൊക്കെ പൈസ പിഴിയുന്ന ഒരു ഇത് സമ്പ്രദായം ഉള്ളത് ഇപ്പോൾ ബാക്കി പുറമെ കർണ്ണാടകയിൽ ആണെങ്കിൽ തന്നെ അവിടെ ലേഡീസിനൊക്കെ നമ്മൾ അവർക്ക് എവിടെ പോകണമെങ്കിലും ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഫ്രീയാണ് അതായത് ഇപ്പോൾ അവർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട പിന്നെ വീട്ടമ്മമാർക്ക് രണ്ടായിരം രൂപ മാസം മാസം കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ തമിഴ് നാട്ടിലും ആയിരം രൂപ വച്ച് കൊടുക്കുന്നുണ്ട് അത് സ്ത്രീകൾക്ക് പിള്ളേർക്കും കുട്ടികൾക്കും അടക്കം ഫ്രീയാണ് ഇവിടെ മാത്രം എങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഫ്രീയുമല്ല അവർക്ക് പാസ്സ് കൊടുക്കുന്നത് തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പാസ്സ് കൊടുക്കുന്നത് എന്നിട്ടുതന്നെ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് ഓടുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പൈസ കൂടുതലാണ് കാരണം ഈ പെട്രോളിനാണെങ്കിലും ഡീസലിന് ആണെങ്കിലും ഇപ്പം രണ്ട് രൂപയാണ് ഇവിടെ ടാക്സ് വന്നിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോഴത്തെ വാർത്തയിൽ ആണെങ്കിൽ തന്നെ ഇതൊന്നും പരാമർശിക്കുന്നുമില്ല അങ്ങനത്തെ ഒരു സംഭവവും നടക്കുന്നുമില്ല ആദ്യമൊക്കെ ഭയങ്കര എന്താ പറയുക വിഷയമായിട്ട് ഒരു സംഭവമായിട്ടാണ് നടന്നുകൊണ്ട് ഇരുന്നത് ഇപ്പം എന്താ പറയുക ഒരു ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നുമില്ല പറയുന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്